കോഴി ഇറച്ചി ഉല്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് അതിൻ്റെ രീതികൾ നമ്മൾ ആദ്യം കോഴിയെ അതിനെ കണ്ടിച്ചു അതിനെ കഴുകി വൃത്തിയാക്കി പിന്നെ അത് അത് പാക്ക് ചെയ്തു അങ്ങനെ വരികയാണല്ലോ സാധാരണ ചെയ്യുന്നത് അങ്ങനെ പക്ഷെ അതിൻ്റെ അകത്ത് ചെറിയ പിന്നെ ദിവസം അത് ദിവസങ്ങളോളം ഇരുന്നാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി അത് അത് പിന്നീട് ഉപയോഗിക്കുമ്പത്തിനും അത് ഭയങ്കരം ആയിട്ട് പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ അത് ചീത്ത അല്ലെ അത് ശരിയല്ല അത് ആ രീതിയിൽ കാരണം നമ്മൾ ഏത് സാധനം അത് ഫ്രഷ് ആയിട്ട് പറഞ്ഞാലും നമ്മൾ അത് അന്നേരം തന്നെ തന്നെ ഉപയോഗിക്കാൻ ഉള്ളതല്ല അതിൻ്റെ ഇത് അത് അല്ലാതെ പ്രതേകിച്ചു ഒരു ഇങ്ങനെ ദിവസങ്ങളോളം അതിനെ ഇതിപ്പം ഈ പ്രോസസ്സ് ചെയ്യുന്നത് തന്നെ ഇത് തന്നെ ഒത്തിരി ദിവസങ്ങളോളം ചിലപ്പം ഇരുന്നെന്ന് വരും അപ്പം അതൊക്കെ നമുക്ക് ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ അതൊക്കെ ശരിയായിട്ടുള്ള അതിൻ്റെ ഗുണനിലവാരം ഒന്നും അത്ര ക്ലിയർ ആയിരിക്കത്തില്ല കാരണം ദിവസങ്ങൾ എത്ര ദിവസം ഇരിക്കും എന്ന് നമുക്ക് മേടിക്കുന്ന ഒരാൾക്ക് അറിയത്തില്ല കാരണം അത് എത്ര ദിവസം മുമ്പാണ് ആ കടയിൽ കൊണ്ടു വന്നിരിക്കുന്നത് അത് എത്ര നാൾ ഫ്രീസറിൽ വച്ചു വച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ കൈയിലോട്ട് കിട്ടുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഫ്രിഡ്ജിൽ ആണെണെങ്കിൽ തന്നെ ഒരു ഏത് സാധനമാണെന്ന് പറഞ്ഞാലും ഒത്തിരി ദിവസങ്ങൾ അങ്ങനെ വച്ചു അത് അതിൻ്റെ ആ ഗുണമേന്മ ഒക്കെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് ശരിയായ നടപടി അല്ല അതിനോട് എനിക്ക് യോജിപ്പില്ല ആ ഒരു കാര്യത്തിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധങ്ങൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ അങ്ങനെ വീടുകളിൽ ഉപയോഗിക്കാറില്ല ഫ്രിഡ്ജിൽ വച്ച ഒരു സാധനവും അങ്ങനെ പിറ്റേ ദിവസം എടുത്ത് അത് അങ്ങനെ ഉപയോഗിക്കുക അന്നന്നൊക്കെ അന്നത്തേനുള്ള സാധനങ്ങൾ മേടിച്ച് അന്ന് തന്നെ ഉപയോഗിച്ചു അന്നേരം തന്നെ അത് അല്ലാതെ ഫ്രിഡ്ജിൽ വച്ചുള്ള ഒരു രീതി ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് താല്പര്യമുള്ള കാര്യങ്ങൾ ഫ്രിഡ്ജിൽ വച്ച സാധനങ്ങൾ കഴിക്കരുതൊന്നും

അപ്പം അതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം അത് എത്രയും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം

കോഴിയെ അറക്കുക അത് നമുക്ക് ഞാൻ കണ്ടിട്ടില്ല അത് കോഴിയെ ഇങ്ങനെ കണ്ടിച്ചിട്ട് എനിക്ക് അതൊക്കെ കാണുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത്കൊണ്ട് പിന്നെ അതിൻ്റെ ഇതാണ് അതിൻ്റെ ഗുണനിലവാരവും അത്ര ഇതല്ല അല്ലോ കാരണം സാധാരണ രീതികളിൽ അങ്ങനെയൊക്കെ തന്നെ അല്ലെ കാരണം നമ്മൾ കടകളിൽ ഇപ്പം സാധാരണ ആൾക്കാർ ഇങ്ങനെ പിന്നെ കൂടുതൽ ഈ വെളി നാടുകളിലോട്ടും നമ്മുടെ നാടുകളിൽ നമ്മുടെ കേരളത്തിനൊന്നും അത്രയും ഇതല്ല കാരണം മേടിച്ച് ഇങ്ങനെ നാളുകളോളം അല്ല പിന്നെ മേടിച്ച് നമ്മൾ തന്നെ മേടിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വച്ച് സൂക്ഷിക്കുന്നത് അല്ലാതെ നമ്മൾ ഇങ്ങനെ മേടിച്ച് പായ്ക്ക് അതൊന്നും സാധാരണ ഗതിയിൽ ഇവിടങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചു എനിക്ക് അറിവില്ല അതിനെ കുറിച്ച് ഞാൻ അല്ലാതെ അങ്ങനെ കേട്ടിട്ടുള്ളത് അല്ലാതെ എനിക്ക് അതിനെ അതിനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല പിന്നെ ഇത് എന്താണ് നമ്മൾ എപ്പോ ഴും നല്ലത് തന്നെ മേടിച്ചു ഉപയോഗിക്കാമെന്നുള്ളതാണ് അതിൻ്റെ നല്ല കാര്യം അതിൻ്റെ ഗുണനിലവാരം അത് അത്ര നല്ലതായിരിക്കത്തില്ല കാരണം അതിൻ്റെ ഗുണം അത്ര അത്ര ഇതല്ലല്ലോ കാരണം നമ്മൾ എപ്പോഴും അത് ഫ്രഷായിട്ട് മേടിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നാളുകളോളം ഇരുന്നുള്ള സാധനങ്ങൾ നമുക്ക് അറിയത്തില്ല അത് മേടിക്കാൻ അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല ഇപ്പം എന്തുവാണെന്ന് പറഞ്ഞാലും അത് കോഴിയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഏതാണെന്ന് പറഞ്ഞാലും പിന്നെ അതിൻ്റെ അത് കഴുകാതെയൊക്കെ ആണോ അത് പാക്ക് ചെയുന്നതെന്ന് നമ്മൾക്ക് അറിയത്തില്ല കഴുകാതെയാണോ അപ്പം അത് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് നമുക്ക് അറിയത്തില്ല അതിനെ കുറിച്ചൊന്നും അത്രയൊക്കെ ഉള്ളു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതെ അത്രയേ ഉള്ളു